ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ അതിഥികൾക്ക് അതിഥികൾക്ക് വേണ്ടീട്ട് ഹൗസ് ബോട്ടുകളുണ്ട് ഹൗസ് ബോട്ടുകളിലാണ് അതിഥികളെയും കൊണ്ട് നമുക്ക് എല്ലാടോം നടക്കാൻ പറ്റുന്ന ഒരു ദിവസം ആ ഒരു ദിവസത്തേക്ക് ഹൗസ് ബോട്ട് എടുത്ത് കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയാണെങ്കിൽ അതിനകത്ത് ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാം ആയിട്ട് ലാസ്റ്റ് ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് ഈ പാട്ട് പാട്ടുകളും ഡാൻസുകളുമൊക്കെ പാട്ട് പാടുന്നവർക്ക് പാട്ട് പാടാം ഡാൻസ് കളിക്കുന്നവർക്ക് ഡാൻസ് കളിക്കാം അങ്ങനെ എല്ലാം നല്ല ഒരു ഇതാണുള്ളത് നല്ല ഒരു ദിവസം ഫുള്ളും സമയം പോകുന്നതൊന്നും അറിയത്തില്ല നമുക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളെല്ലാം കണ്ട് കണ്ട് പോവുകേം ചെയ്യാം നല്ല ഒരു ഇതാണ് ഉള്ളത് അതിനകത്ത് പിന്നെ അതുപോലെ തന്നെ ആലപ്പുഴ ജില്ല ഇടുക്കി ജില്ലയിൽ ഇത് വിനോദ സ്ഥലത്തിന് വേണ്ടി ഉള്ള മൊട്ടക്കുന്നുകളും പിന്നെ പൈൻ മരങ്ങളും അതൊക്കെയുണ്ട് അവിടൊക്കെ കാണാൻ നല്ല വാഗമൺ വെള്ള വാഗമൺ സ്ഥലത്തുള്ള ആ വെള്ളച്ചാട്ടങ്ങളും എല്ലാം നല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് എല്ലാവരും ഒത്തിരി പേര് അത് കാണാനൊക്കെ ആയിട്ട് പോകാറുള്ളതാണ് എന്നിരുന്നാലും നമ്മുടെ ആലപ്പുഴയിലുള്ളത് പോലുള്ള ആ ഒരു ഇതൊന്നും നമുക്ക് നല്ലൊരു ഫീലിങ്ങൊന്നും അതിലുണ്ടാവാറില്ല പിന്നെ ഹൗസ് ബോട്ടുകളിലക്കെ ഉള്ള യാത്രകളാണ് കൂടുതൽ ഇവിടെ ഉള്ളത് പിന്നെ കൈനഗിരിൽ ടെർമിനലൊണ്ട് ടെർമിനൽ കാണാൻ വരാൻ ഒരുപാട് പേര് വരാറുണ്ട് അവിടെയും നമുക്ക് ഗെസ്റ്റുകളൊക്കെ കൊണ്ട് പോകാനും നല്ല ഒരു ഇതാണ് അത് നമ്മൾ കായലിൻ്റെ നടുക്കൂടെ കായലിൻ്റെ ഒരു പകുതി മുക്കാലോളം നമുക്ക് നടന്ന് ചെന്ന് കാണാൻ പറ്റുന്ന പരുവത്തിലാണ് അതവിടെ അവർ സജ്ജീകരിച്ചിരിക്കുന്നത് അതിന് അവിടെ നല്ല ഒരു ഉൾക്കാഴ്ച്ചകൾ കാണാൻ പറ്റുന്നത് ഇത് നമുക്ക് പിന്നെ ഹൗസ് ബോട്ടുകളിൽ പോകുന്നവർക്കാണെങ്കിലും അല്ലാതെ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ നടന്ന് ആ ഇതുവഴി നടന്ന് പോയി കായലുകളും ഇതും എല്ലാം നമുക്ക് കാണാൻ പറ്റും അവിടെ ഒത്തിരി പേര് ഷൂട്ടിങ് കാണും പിന്നെ ഷൂട്ടിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ വിഡിയോസ് എടുക്കാനും എല്ലാം വരാറുണ്ടവിടെ അങ്ങനെയൊക്കെ നല്ല ഇതാണ് പിന്നെ ആലപ്പുഴ ബീച്ചൊണ്ട് ബീച്ചിലും നല്ല ഇതാണ് അവിടെ അവിടെയും നല്ല കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാർക്ക്കളും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് ബീച്ചിലാണെങ്കിലും ഒരുപാട് പേര് ഉച്ച കഴിയുമ്പോഴാണെങ്കിലും വൈന്ന് അവിടെക്കെയാവുമ്പം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ബീച്ചിൽ ഒത്തിരി ആൾക്കാർ വരാറുണ്ടവിടെ പിന്നെ ഡിസംബർ ജെനുവരി മാസത്തിലൊക്കെ ഫുഡ് ഫെസ്റ്റിവല് അങ്ങനെക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ബീച്ചിൽ വച്ച് നടത്താറുണ്ട് അപ്പോഴും നല്ല തിരക്കുകളാണ് വിനോദ സഞ്ചാരികളക്കെ ഒരുപാട് വരാറുണ്ടവിടെ അങ്ങനെ നല്ല ഒരു ഇതാണ് അവിടെ ഉള്ളത് പിന്നെ ആലപ്പുഴ മുല്ലക്കൽ ചെറപ്പൊണ്ട് അതും പത്ത് ദിവസത്തെ ചെറപ്പാണുള്ളത് അതിലും ഒരുപാട് ഗെസ്റ്റുകളെല്ലാം വരാറുണ്ട് നല്ല തിരക്കുള്ള ഒരു ഇതാണ് പത്ത് ദിവസവും നല്ല തിരക്കാണ് പിന്നെ ഇതിന് ഈ ചെറപ്പിന് ഉള്ളത് അതുപോലെ അത് ചെറപ്പ് പത്ത് ദിവസത്തെ കഴിയുമ്പോൾ പിന്നെ അർത്തുങ്കൽ പള്ളിയിലുണ്ട് അർത്ത്ങ്ക പള്ളീലും ഇതുപോലെ നല്ല തിരക്കാണ് നല്ലൊരു പേര് കേട്ട ഒരു ഇതാണ് ആർത്ത്ങ്ക പള്ളി പെരുന്നാളെന്ന് പറയുന്നത് അത് ഒരു പത്ത് പത്ത് ഇരുപത് ദിവസത്തോളം നീണ്ട് നിൽക്കുന്ന ഒരു പെരുന്നാളാണത് അതിന് നല്ല തിരക്കാണ് എപ്പോൾ എപ്പം ചെന്നാലും നല്ല തിരക്കായിരിക്കും അവിടെ അവിടെയും ബീച്ചിൽ ബീച്ച് വരെയും നല്ല പള്ളീടെ വാതിക്കേന്ന് നേരെ ബീച്ച് വരെ റോഡിൻ്റെ ഇരു ഇരു സൈഡുകളിലും നിറച്ച് കടകളും പല പല ഇത് വിൽപ്പനക്കാരുമെല്ലാം ഒരുപാട് വിൽപ്പനക്കാരൊക്കെ ഉണ്ടാവും ഒരുപാട് സാധനങ്ങളെല്ലാം വെറൈറ്റി ഓരോ വർഷവും വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അവിടെ വില്പനക്കായിട്ട് വരാറുള്ളത് കരകൗശല വസ്തുക്കളൊക്കെ ആണെങ്കിലും എല്ലാം നമുക്ക് ഒത്തിരി ഇവിടെ കാണാനൊക്കെ ഒരുപാടുണ്ട് അങ്ങനെ നല്ല ഒരു ഇതാണ് അവിടെ പോയാൽ നമുക്ക് വൈകുന്നേരം പോകുന്നവർക്ക് അസ്തമയോം കണ്ട് തിരിച്ച് വരാവുന്നതാണ് പിന്നെ അങ്ങനെ നല്ല ഒരു ഇതാണ്